ഞാന് ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത് എൻ്റെ ഒരു പന്ത്രണ്ടാമത്ത വയസ്സിലാണ് അന്നാണെനിക്കാദ്യമായിട്ട് കയ്യിലൊരു ക്യാമറ ഉള്ള ഫോൺ കിട്ടുന്നത് അതിലാണ് ഞാനാദ്യത്തെ ഫോട്ടോ എടുക്കുന്നത് അതെൻ്റെ വീട്ടിലെ ഒരു പൂച്ചയെ ആണ് ആദ്യത്തെ ഫോട്ടോ എടുത്തത് പിന്നീട് ആദ്യമാദ്യം ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെ ആണ് എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന രീതിയെ കുറിച്ച് പഠിച്ചതിന് ശേഷം കാണുന്ന ചുറ്റിനും കാണുന്ന പൂക്കളും പുഴുക്കളും പിന്നെ നമുക്കിഷ്ടപ്പെട്ട എല്ലാത്തിനേയും തന്നെ ഈ ഫോട്ടോയിൽ പകർത്താനുള്ള ഒര് താല്പര്യം കൂടി വരികയായിരുന്നു ഇന്നത്തെ കാലത്ത്ള് ഉള്ള കുട്ടികൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാണ് കാരണം സാങ്കേതികവിദ്യയും അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി അത്രത്തോളം വളർന്നിട്ടുണ്ട് അതേ ഇന്നൊര് ക്യാമറ പോലും ഇല്ലാത്തൊരു വീടുണ്ടാവില്ല എന്തിന് പറയുന്നു ക്യാമറക്കുപരി ഒരു മൊബൈൽ ഫോൺ തന്നെ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ഏറ്റവും വലിയ ക്യാമറ തന്നെയാണ് അതിനകത്ത് അതിൽ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനോ അതുപോലെ തന്നെ വിശേഷങ്ങൾ പങ്ക് വെക്കാനോ ഒക്കെ കഴിയുന്നുണ്ട് ഒര് ക്യാമറമാനായി തീരാനാണ് ഇന്നത്തെ കുട്ടികളുടെ പലരുടേയും ആഗ്രഹം